ഹലോ ഇത് മഞ്ചേരിയിൽനിന്ന് നിങ്ങളുടെ ഒരു കസ്റ്റമർ ഫസ്നയാണേ സംസാരിക്കുന്നത് ഞങ്ങൾ ഫാമിലിയായിട്ടൊരു ഗോവയ്ക്കൊരു ടൂറ് പോകാൻ വേണ്ടി നിങ്ങളുടെ അടുത്തു നിന്ന് ക്യാബ് ബുക്ക് ചെയ്തിരുന്നു പക്ഷേ എന്തുകൊണ്ടാന്നറിയില്ല ഇതുവരെ ഡ്രൈവർ വിളിച്ചിട്ടുമില്ല എത്തിയിട്ടുമില്ല സ്ഥലത്തെത്തിയിട്ടുമില്ല എന്താണിങ്ങനെ സംഭവിച്ചത് ഞങ്ങളുടെ ബുക്കിങ്ങൊക്കെ ഒക്കെ ആയിരുന്നില്ലേ ബുക്കിങ്ങിൽ മിസ്റ്റേയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ സക്സസ്ഫുളീ ബുക്ക്ഡ് എന്നാണ് കാണിച്ചത് ഞങ്ങൾ ലൊക്കേഷനും ഷെയർ ചെയ്തിരുന്നു എന്നിട്ടുമെന്താ ഇങ്ങനെ സംഭവിച്ചത് ഇതിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ളതല്ലേ കൃത്യസമയത്ത് എത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമായിരുന്നല്ലോ ഞാൻ ആ ഡ്രൈവറെ ഒരുപാട് വിളിച്ചു പക്ഷേ അദ്ദേഹം ഫോൺ എടുക്കുന്നുമില്ല ഇങ്ങനെ ആയാലെന്താണ് ചെയ്യുക ഇനിയിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളെങ്ങനാ കൃത്യസമയത്തിനി എത്തുക ട്രെയിനാണെങ്കിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളതാണ് റെയിൽവേ സ്റ്റേഷനിലെത്രയും പെട്ടെന്നെത്തേണ്ടതായിരുന്നു നിങ്ങളൊരു കാര്യം ചെയ്യൂ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വേറൊരു ക്യാബ് ഏർപ്പാടാക്കി തന്നേ പറ്റുള്ളൂ എത്രയും പെട്ടെന്ന് വേണം അത് അല്ലെങ്കിൽ ഞങ്ങളുടെ യാത്ര മുഴുവൻ മുടങ്ങും ഞങ്ങളൊരുപാട് കാലമായിട്ടേ അന്വേഷിച്ച് കണ്ടുപിടിച്ചൊരു സ് ഡെസ്റ്റിനേഷനായിരുന്നു ഇതിപ്പം ഇങ്ങനെ ആയാൽ എന്താ ചെയ്യുക ഇനിയും വൈകാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വേറൊരു ക്യാബ് നിങ്ങൾ ഏർപ്പാടാക്കി തരണം അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ കോൾ ചെയ്തതേ ആ ആ ഒക്കെ താങ്ക് യൂ